ആ ഹലോ ഇത് ആ റസ്റ്റോറൻറ്റല്ലേ ആ അതെയതെ ഞാൻ കുറച്ച് നേരം മുൻപ് നിങ്ങളെ ഒന്ന് കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഫുഡ് വേണംന്ന് പറഞ്ഞ് ഒരു മൂന്നു ബിരിയാണി ഓർഡറ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ അത് തന്നെ അത് തന്നെ ആ ഓക്കെ ഓക്കെ ആ അപ്പം ഞാൻ ബിരിയാണി ഓർഡറു ചെയ്തിട്ട് നിങ്ങളെനിക്ക് അയച്ചേക്കുന്നത് മന്തി ആണല്ലോ ആ ഇല്ല നമ്മളിവിടെ വീട്ടിലുള്ളവർ മന്തി കഴിക്കില്ല അതുകൊണ്ടാണ് നമ്മൾ ബിരിയാണി ഓർഡർ ചെയ്തത് അപ്പം നിങ്ങൾ ബിരിയാണി തരാന്നു പറഞ്ഞിട്ട് ഇപ്പം നമ്മൾ മന്തി കഴിക്കേണ്ട അവസ്ഥയാണ് അതാണ് ഞങ്ങൾ വിളിച്ചുനോക്കിയത് ഇപ്പം നമുക്ക് മന്തി ഇഷ്ടമല്ല അതുകൊണ്ട് ഞങ്ങൾ മന്തി കഴിക്കില്ലാത്തോണ്ടാണ് ഞാൻ വിളിച്ചുപറഞ്ഞത് ഒന്നെങ്കിൽ നിങ്ങളീ ഓർഡർ റിട്ടേൺ എടുത്തിട്ട് നമുക്ക് ബിരിയാണി തന്നെ തന്നുവിടുവാണെങ്കിൽ നല്ലതായിരുന്നു ആ അതെയതെ നിങ്ങൾ എന്താ എങ്ങനെയാണ് ചെയ്യുന്നതപ്പോൾ നിങ്ങൾ ഒന്നെങ്കിൽ ബിരിയാണി കൊടുത്തുവിട്ടിട്ട് ഇത് റിട്ടേൺ എടുത്തോളു നമുക്ക് കുഴപ്പമില്ല ഇല്ല ഞങ്ങളിത് കഴിച്ചിട്ടൊന്നുമില്ല ഇല്ല കഴിച്ചിരുന്നില്ല കഴിച്ചിട്ടില്ല നിങ്ങളിത് ഏ ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അല്ലാണ്ട് നമ്മളൊന്നും ചെയ്യാ എന്തോ എന്താ കണ്ടപ്പം തന്നെ നമുക്ക് കാര്യം മനസിലായി അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളെ വിളിച്ചു പറഞ്ഞത് ആ ഓക്കെ ഓക്കേ നിങ്ങളാളെ വിട്ടിട്ട് എന്നാൽ ബിരിയാണി അവരടുത്ത് കൊടുത്തുവിട്ടോളൂ നമ്മൾ പേ ചെയ്തതാണല്ലോ ആൾറെഡി ഞാൻ ഞങ്ങൾ ക്യാഷ് പേ ചെയ്തതാണ് അപ്പം നിങ്ങൾ ബിരിയാണി ഇങ്ങോട്ട് കൊടുത്തുവിട്ടിട്ട് ഇത് റിട്ടേൺ എടുത്തോളൂ ആ ആയിക്കോട്ടായിക്കോട്ടെ താങ്ക് യൂ താങ്ക് യൂ